ഹലോ ട്രാവല് ഏജന്സി അല്ലെ ആ ഇത് രോഹിണിയാണ് സംസാരിക്കുന്നത് ഞാൻ അവിടന്നൊരു കാറ് ബുക്ക് ചെയ്തിരുന്നു രണ്ട് മാസം മുമ്പ് അപ്പം അതിന്റെ യാത്ര ഞങ്ങൾ മൂകാമ്പി ഉഡുപ്പി മുരുദ്വേശ്വര് അങ്ങനെയൊരു തീര്ദ്ധയാത്രയായിരുന്നു ഞങ്ങൾ പോയിരുന്നത് അതൊരു അഞ്ച് പേരുടെ വണ്ടി ആയിരുന്നു അപ്പോൾ അത് ആ യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അതായതിന്റെ ഡ്രൈവറായാലും ആ വണ്ടിയായാലും ഞങ്ങൾക്ക് ഭയങ്കര കംഫട്ടബിളായിരുന്നു അപ്പം ഞങ്ങൾ ഇനി നെക്സ്റ്റ് വീക്ക് അതുപോലെയൊരു യാത്ര മൂകാമ്പി അല്ല മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടേക്കൊരു യാത്ര ഞങ്ങളിങ്ങനെ പ്ലാന് ചെയ്യായിരുന്നു അപ്പം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ആ ട്രാവലേജൻസിയാണ് അതുകൊണ്ട് ആ ട്രാവൽ ഏജന്സീൽ അവിടുത്തെ കാറ് തന്നെ കിട്ടുവോന്നറിയാൻ വേണ്ടീട്ടായിരുന്നു ഞങ്ങൾ വിളിച്ചത് ആ അതെ അതേ കാറ് തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം നമുക്ക് എന്താ പറയാ അത് നമ്മളത്രേം കംഫട്ടബിളായിരുന്നു ആ കാർലായാലും സ്പേസിങ്ങായാലും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലോം അതെ ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ആ വണ്ടി ഓടിക്കുന്ന ആളായാലും ആൾ ഭയങ്കര ആള്ക്ക് പോയ പോകുന്ന സ്ഥലങ്ങളെ പറ്റീട്ടൊക്കെ ധാരണ ഉള്ള ആളാണെന്ന് തോന്നി ഞങ്ങൾക്ക് പല സ്ഥലങ്ങൾലായാലും ഭക്ഷണത്തിലായാലും ഒക്കെ അയാൾ സജസ്റ്റ് ചെയ്ത്ന്ന ഹോട്ടലിലൊക്കെയാണ് ഞങ്ങൾ കയറി ഭക്ഷണം കഴിച്ചത് അപ്പം ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുവുണ്ടായില്ല ഞങ്ങളെ രാത്രി യാത്രയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പം രാത്രി യാത്രയൊക്കെ പക്ഷേ സുരക്ഷിതാമായിട്ട് അയാൾ ഞങ്ങളെ കൊണ്ടാക്കി അപ്പം അതൊക്കെ ഞങ്ങൾക്കൊരിക്കലും മറക്കാമ്പറ്റാത്തൊരു അനുഭവമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആ ആളെത്തന്നെ ബുക്ക് ചെയ്യാന് വല്ല സൗകര്യങ്ങളും ഉണ്ടോന്നറിയാന് വേണ്ടീട്ടായിരുന്നു ആൾടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഓര്മ്മയില്ല പക്ഷേ അത് എങ്ങനെയാണെന്നത് ഞങ്ങൾടേ മുമ്പ് ബുക്ക് ചെയ്ത വിവരങ്ങൾ വെച്ചിട്ട് ആ ആളെ ഒന്ന് കിട്ടുവെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരം ആയിരുന്നു ഞങ്ങളുടെ കൈയിലുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ വാട്ട്സപ്പ് വഴി വേണങ്കിലയച്ചു തരാം അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ നോക്കീട്ട് ആരാണാ ഡ്രൈവർന്നുള്ളത് നിങ്ങൾക്കറിയാന് പറ്റുവല്ലോ ആ എന്നാൽ ഇനി ഞാന് വിളിക്കേണ്ടത് തിരിച്ച് വിളിച്ചോളുവോ ഓക്കെ ആ അങ്ങനെയാണെങ്കില് ശരി ഉപകാരം ആയിരുന്നു ഓക്കെ എന്നാൽ ശരി നന്ദി